അതെ പ്രിൻസിപ്പളായിരുന്നു സംസാരിക്കുന്നത്

ആ പേരെന്തായിരുന്നു ആ കർ ആ നൈൻറ്റി ടു പേസെൻറ്റേജില്ലേ ആ ഓക്കെ നല്ലത് ആ ഇവിടെ നമ്മുടെ എഞ്ചിനീയറിങ്ന്ന് പറയുമ്പോൾ നമുക്ക് നാല് വർഷമാണ് വരുന്നത് അപ്പോൾ നാല് വർഷത്തിൽ നമ്മളോരോ വർഷത്തിൽ രണ്ട് സമസ്റ്ററ് വീതാ വരുന്നത് നമുക്ക് അപ്പോൾ രണ്ട് സെമസ്റ്റർ ല്ല ഓരോ സെമ ഒരു സെമസ്റ്ററിന് നമുക്ക് നാൽപ്പതിനായിരം വെച്ചിട്ടാണ് നമ്മൾ ഫീസുള്ളത് ആഹാ അപ്പോൾ ആ നൈൻറ്റി ടു നമ്മൾ നൈൻറ്റി എബോ ഉള്ളോർക്കൊരു സ്കോളർഷിപ്പ് എക്സാം നമ്മളിവിടെ കോളേജിൽ കണ്ടക്ററ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതറ്റൻ്റെയ്യാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരാൻ പറ്റും ടോപ്പ് സ്കോറിൽ വരാണമെന്നുണ്ടെങ്കിൽ

നമുക്കൊരു ഫിഫ്റ്റി ഫോർട്ടി പേസെൻറ്റ് ഇപ്പോൾ ഫോർട്ടി ഫിഫ്റ്റി പേസൻറ്റേജ് നമ്മൾ ചെയ്ത് തരും അപ്പോൾ ഈ വേറെ വേറെന്തെങ്കിലും അറിയാനുണ്ടായിരുന്നോ കോളേജിനെക്കുറിച്ചോ കാര്യങ്ങളോ മുന്നെ എവിടെയാണ് പഠിച്ചേന്നാ പറഞ്ഞത് ആ ആ സയൻസായിരുന്നോ

അല്ല നം നമുക്ക് ഒന്നും കൂടെ ഇവിടെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സാറ്മ്മാരും ഇതിനാണ് അപ്പോൾ ഇതിന് സിവിൽനും ചേരുന്നതന്നെയായിരിക്കും നന്നാവുക നമുക്ക് ഫീയും കാര്യങ്ങളും നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നതുവാണ്

ആ എല്ലാവരും അടിപൊളിയാണ് നമ്മൾ കുട്ടികളെ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് ഒരു പേടിയും പേടിക്കാനില്ല ഓ ക്യാമ്പസൊരു ദിവസം ഇവിടെ വന്ന് കണ്ടോളു നമ്മൾ ഓഫീസിൽ വന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ചോ അത് കേട്ടോ ഓക്കെ ഒരു പ്രശ്നവും ഇല്ല വന്നോളു താങ്ക് യു